എൻ്റെ പ്രദേശത്തെ ആരോഗ്യ സേവനങ്ങളും പട്ടണത്തിലെ പ്രദേശത്തെ സൗകര്യങ്ങളും ഒന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായതായി എനിക്ക് തോന്നിയിട്ടില്ല കാരണമെന്തെന്നുവച്ചാല് ഇപ്പം എൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു നാട്ടിൻപുറം പോലെയാണ് അപ്പോൾ അവിടുത്തെ ആരോഗ്യ സേവനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പട്ടണത്തിലെ പോലെതന്നെ ഡോക്ടർമാരുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആൾക്കാർക്ക് കുറച്ചുകൂടി എന്ത് സൗകര്യപ്രദമാകുന്ന ചെറിയ ചെറിയ എക്സറേകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടെസ്റ്റുകൾ ആയിക്കോട്ടെ ഇതിനുള്ള സൗകര്യങ്ങളൊന്നും ആ ഒരു നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു പ്രദേശത്ത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ കുറച്ചും കൂടിയും ഡോക്ടർസ് എന്നു വെച്ചാൽ ഇപ്പോൾ ഒരു ജനറൽ ഡോക്ടറ് എന്നതിലുപരി ഒരു നല്ല ഒരു ഫിസിഷ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിലൊരു മറ്റു വിഭാഗങ്ങൾ കാണിക്കുന്ന സാധാരക്കാർക്ക് കാണുവാനും അവർക്കൊരു ഉപകാരമാകാനും രീതിയിലുള്ള ഒരു എന്താണ് ഡോക്ടർമാരും സേവനങ്ങളൊക്കെ ഉണ്ടായാൽ കുറച്ചുകൂടി നല്ലതായി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യ സേവനങ്ങളെന്ന് പറയുമ്പോൾ അതിൽ മരുന്നുകളുടെ അവൈലബിലിറ്റി മരുന്നുകളുടെ കാര്യങ്ങൾ പറയുവാണെങ്കില് മരുന്ന് ഇല്ല എന്ന് പറഞ്ഞ് പ്രൈവറ്റ് മരുന്നുകൾ പ്രൈവറ്റ് മെഡിസിൻസ് കമ്പനികളിൽ നിന്നും മെഡിസിൻസ് വാങ്ങണ്ട അല്ലെങ്കിൽ സൗജന്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തിപ്പെടണ്ട ആ ഒരു മരുന്നുകൾ പൈസ കൊടുത്തു മേടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ പലർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിലുള്ളൊരു സൗകര്യം അല്ലെങ്കിൽ കൂടുതൽ എന്ന വളർച്ചയോടുകൂടിയിട്ടുള്ള അല്ലേൽ കൂടുതൽ ഇപ്പത്തെ ഒരു കാലത്ത് ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കുറെ രീതിയിലുള്ള സേവനങ്ങൾ ഉണ്ടല്ലൊ ഈ കുറെ രീതിയിലുള്ള ഒരു മാറ്റങ്ങളുണ്ട് എന്നുവച്ചാൽ ഡോക്ടർമാർക്ക് ചെയ്യണ്ട ടെസ്റ്റുകളായിക്കോട്ടെ അല്ലെങ്കില് അവർക്ക് ഇപ്പോൾ ഓരോ അസുഖത്തിനും ഓരോ സ്പെഷ്യലായിട്ടുള്ള ഡോക്ടർമാരുണ്ട് അപ്പം അവർക്കൊക്കെ ഈ ഒരു ഫീൾഡിലോട്ട് അങ്ങനെയുള്ള ഡോക്ടർമാരെയും അതായത് ഗവൺമെൻറ്റ് സേവനം അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള ആ ഒരു സാധാരണക്കാർക്ക് കാണാൻ പറ്റാവുന്ന ഇങ്ങനെയുള്ള ഒരു എല്ലാ ഡോക്ടർമാരും ആ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട്